ഹലോ ഞാന് വയനാട്ടില് നിന്നാണ് കാള് ചെയ്യുന്നത് എനിക്ക് പഴശ്ശിരാജ അവിടെ ഒരു പാര്ക്ക് ഉണ്ടെന്നു കേട്ടിട്ടുണ്ട് വണ്ടിക്കടവ് ആ അവിടെവരെ ഒന്ന് പോകണമായിരുന്നു അപ്പം ഞാനിപ്പം അമരക്കുഴി എന്നു പറയുന്ന സ്ഥലത്തുന്നാണ് വിളിക്കുന്നത് എനിക്ക് പഴശ്ശിരാജ പാർക്കിലൊന്ന് പോകുവാന് വേണ്ടിയായിരുന്നു ഒരു ടാക്സി ബുക്ക് ചെയ്യാന് വേണ്ടിയായിരുന്നു അവിടവിടെ ഉള്ളൊരു ടാക്സി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് പോകണമായിരുന്നു അര്ജൻ്റാണ് അപ്പം ഞാന് അവിടെ ഏതെങ്കിലും ഓട്ടോ ആണെങ്കിലും മതി അല്ലെങ്കിൽ എന്ത് എനിക്ക് അവിടെ പോകാനുള്ള ഏതെങ്കിലും ഒരു വാഹനം ബുക്ക് ചെയ്തു തരുമായിരുന്നെങ്കിൽ എനിക്ക് പോകുവാന് എളുപ്പമായേനെ ഇപ്പോൾ വേറെ സാഹചര്യം ഒന്നും ഇല്ല പോകുവാന് വേണ്ടി അപ്പം എനിക്ക് അവിടേയ്ക്ക് എത്തിച്ചേരണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ബ്യുട്ടിഫുള് പ്ലേസ് ആണതെന്ന് അപ്പം അവിടേയ്ക്ക് എത്തണം എന്നൊരു ആഗ്രഹം അവിടെ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പം എനിക്ക് ഇവിടെ നിന്ന് പോകുവാനായിട്ട് വേറെ വാഹനങ്ങള് ഒന്നും ലഭ്യമല്ല അപ്പം എനിക്കൊരു ക്യാബിന് ബുക്ക് ചെയ്യാന് വേണ്ടിയായിരുന്നു അവിടെ ഏതെങ്കിലും ടാക്സി അവൈലബിള് ആണെങ്കില് ഒന്നു ജസ്റ്റ് ഈ ഇങ്ങോട്ട് പറഞ്ഞു വിടുമോ എൻ്റെ നമ്പര് കൊടുത്ത് ഒന്ന് ജസ്റ്റ് കാള് ചെയ്താൽ മതി എനിക്ക് ഒന്ന് അവിടേയ്ക്ക് എത്തണമായിരുന്നു